എന്നെ സംബന്ധിച്ച് ഇന്നത്തെ തലമുറയിൽ കാണപ്പെടുന്ന ഒന്നാണ് ഒരു കുഞ്ഞ് ആദ്യം ജനിച്ച് വീഴുമ്പോൾ തന്നെ ആദ്യമായി കാണുന്നത് അല്ലെങ്കിൽ ആദ്യമായി കൊച്ച് കയ്യിൽ തൊടുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ അത് പിന്നെ ആ കൊച്ചിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെ ഒരു ആവശ്യത്തിനും ഉദാഹരണത്തിന് ഒരു ഭക്ഷണം കഴിക്കാൻ പോലും തന്നെ ആ കൊച്ചിന് ഇപ്പോൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇൻറർനെറ്റ് അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ കംപ്യൂട്ടർ ഒന്നും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത് അതിനെ എല്ലാം മറികടന്നാണ് നമ്മൾ കം നമ്മുടെ പ പൂർവ്വീകരുടെ തലമുറ നോക്കുവാണെങ്കിൽ അവർ ജനിച്ച് വീഴുമ്പം തന്നെ ആദ്യം ചൊല്ലുന്ന ഒന്നാണ് അമ്മ ജനിച്ച് വീഴുമ്പോഴല്ല കൊച്ചിൻ്റെ ഒരു സംസാരിക്കാൻ തുടങ്ങുമ്പം തന്നെ നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന ഒന്നാണ് അമ്മ അത് മുതിർന്നവരുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കുക എന്നത് പലതും നമ്മൾ കേട്ടും കണ്ടും ആണ് പണ്ടത്തെ തലമുറ പഠിച്ചിരുന്നത് പക്ഷേ ഇപ്പോക് കൂടുതലും അവർ അഡിക്റ്റ് ആയി കിടക്കുന്നത് മൊബൈൽ ഇൻറർനെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് പക്ഷേ ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അതിന് ആദ്യം ചൊല്ലി കൊടുക്കുക അതിന് ശേഷം അതിന് ഇൻട്രസ്റ്റിങ്ങ് ആയിട്ട് കാണിക്കുന്ന നല്ല കഥാ ബുക്കുകൾ പിക്ചർ ആയിട്ടുള്ള കഥാ ബുക്കുകൾ അതിനെ കാണിച്ച് കൊടുത്ത് അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് കൊടുക്കുക കൂടുതലും ആ കൊച്ചിൻ്റെ കൂടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ വീട്ടിലെ അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി സമയം കണ്ടെത്തി അതിന് കൂടെയായിരുന്ന് പറഞ്ഞ് കൊടുക്കാൻ പരിശ്രമിക്കണം ഇപ്പോൾ സമയം കിട്ടാത്തതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് പറഞ്ഞ് കൊടുക്കാൻ വീട്ടിലെ ഒരു വ്യക്തികൾക്ക് പോലും സമയം കിട്ടുന്നില്ല കാരണം അവരുടെ തിരക്ക് പിടിച്ച ജീവിതം ഇതിന് ഒരു കാരണമാകാം അല്ലെങ്കിൽ ജോലി തിരക്കും ഇതിനൊരു കാരണമാകാം അല്ലെങ്കിൽ സമയം കിട്ടായ്മ ഇതിനൊരു കാരണമാകാം അത് കാരണം കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് വായനാ ഇങ്ങനെ ഇൻറർനെറ്റിന് അഡി അഡിക്റ്റ് ആയിരിക്കുന്നതല്ലാതെ നമുക്ക് അതിനെ ഒഴിച്ച് കൂടാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അവരുടെ കൂടെയായിരുന്ന് ആദ്യമേ തന്നെ അവർക്ക് കഥകൾ പുസ്തകങ്ങളോ അല്ലെങ്കി കഥ ബുക്കുകളോ എന്തെങ്കിലും ഇലക്ട്രോണിക് തിങ്ങ്സ് ഉപ ഉപയോഗിക്കാത്ത ബാക്കി ബുക്ക് വഴിയായിട്ടുള്ളതൊക്കെ ആദ്യം കാണിച്ച് കൊടുത്ത് അതിനെ പഠിപ്പിക്കുക അങ്ങനെ കുഞ്ഞിലേ നിന്ന് കുഞ്ഞ് ആദ്യമേ ഇഴയുന്ന കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിച്ച് കൊടുക്കാൻ പാടില്ലാത്തതാണ് അത് അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് തന്നെ പഠിച്ച് പഠിച്ച് പഠിച്ച് പയ്യെ നടന്ന് അതുപോലെ പയ്യെ കുഞ്ഞ് ചെറിയ കഥാ ബുക്ക് ബുക്കുകളിൽ നിന്നും മറ്റൊരു ചെറിയ ചെറിയ നല്ല അറിവ് തരുന്ന കുഞ്ഞ് കുഞ്ഞ് ബുക്കുകൾ ഉണ്ടല്ലോ അങ്ങനെ ആ ബുക്കുകളിൽ നിന്നും പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകുംതോറും ഓരോ ദിവസം മുന്നോട്ട് പോകുംതോറും ആ കൊച്ചിന് ഓരോ പടി മുന്നോട്ട് വയ്ക്കുന്നതിനനുസരിച്ച് നല്ല നല്ല ബുക്കുകൾ ലൈബ്രറികളിലും നമ്മളെ സ്കൂളുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ പല വീടുകളിലും തന്നെ ബുക്കുകളുടെ ഒരു കലവറയുണ്ട് അങ്ങനെ നമ്മുടെ പൂർവ്വീകർ പഠിച്ച കുഞ്ഞ് കുഞ്ഞ് നല്ല നല്ല കഥാ ബുക്ക് ബുക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല ശീലം കുഞ്ഞുങ്ങളെ വായനാശീലം വളർത്തിയെടുക്കാൻ വേണ്ടി കുടുംബത്തിലെ നമ്മൾ ഓരോരുത്തരും അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ ചേ അമ്മച്ചി അനിയത്തി മുത്തശ്ശി മുത്തശ്ശൻ എല്ലാവരും തന്നെ ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ട ഒരു കാര്യമാണ് വായനാശീലം വളർത്തുക അത് നല്ല വായനാശീലമായിരിക്കണം കുഞ്ഞിലേ തന്നെ നമ്മുടെ അടിസ്ഥാനം എങ്ങനെ ആയിരിക്കുമോ അതുപോലെ ആയിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ ഉറപ്പുള്ളെങ്കിൽ മാത്രമേ നമുക്ക് കൊച്ചിന് മുന്നോട്ട് അല്ലെങ്കിൽ ഒരു വീടിന് നന്നായി നിനച്ച് നിൽക്കാൻ പറ്റുന്നത് പോലെ നമ്മുടേതായ അടിസ്ഥാനം ഉറപ്പില്ലെങ്കിൽ നല്ല രീതി നമുക്ക് മുന്നോട്ട് ഭാവി കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് നല്ല രീതിയിൽ വായനാശീലം വളർത്തി എടുക്കുവാണെങ്കിൽ നല്ലൊരു ഭാവി തന്നെ നമുക്ക് കാഴ്ച വയ്ക്കാൻ സാധിക്കും വായനാശീലത്തിലൂടെ